എനിക്ക് ശെരിക്കും തുറന്ന പാത്രത്തില് പാചകം ചെയ്ത ഭക്ഷണമാണ് ഇഷ്ടം കാരണം എന്തെന്ന് വെച്ചെങ്കില് തുറന്ന പാത്രത്തില് നമ്മള് ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ് അതിന് കുറച്ച് രുചിയും ഒക്കെ ഉണ്ടാവുന്നത് പഷെ നമ്മള് പ്രഷർ കുക്കറില് ഭഷണം പാകം ചെയ്താല് എന്താണെന്ന് വെച്ചാല് അതിന് രുചി അങ്ങനെയുണ്ടാവില്ല പക്ഷെ നമുക്ക് വേഗത്തില് എളുപ്പമാക്കാം പാകം മീൻസ് അതായത് നമുക്ക് പെട്ടന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുമെന്നെ ഉള്ളു ഭക്ഷണം പെട്ടന്ന് നമുക്ക് കുക്ക് ചെയ്തുണ്ടാക്കാം എന്നൊര് എന്നൊരു കാര്യം മാത്രമേ ആ അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളു അത് മാത്രമേ അതിൻ്റെ ഒര് അഡ്വാൻ്റെയ്ജായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റു പക്ഷെ തുറന്ന പാത്രത്തില് പാചകം ചെയ്യുമ്പോൾ അതിന് കുറേ സമയം എടുക്കുന്നുണ്ട് പാചകം ചെയ്ത് നമുക്ക് ആ ഭക്ഷണം ആയി കിട്ടാൻ വേണ്ടി അതായത് അതിൻ്റെ വേവൊക്കെ ഉണ്ടാവുന്നത് മീൻസ് നമുക്ക് അതിലിട്ട് പച്ചക്കറി ആണെങ്കിലും എന്താണെന്ന് വെച്ചാല് അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്നെ ഉള്ളു അതായത് തുറന്ന പാത്രത്തില് നമ്മള് പാചകം ചെയ്യുമ്പോൾ കുറച്ച് സമയം കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് ഉണ്ടാ ലാസ്റ്റ് കിട്ടുന്ന ഭക്ഷണം ഉണ്ടാക്കാം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുന്ന നമ്മൾ കിട്ടുന്ന ഭക്ഷണം നല്ല രുചി ഉള്ളത് തന്നെ ആയിരിക്കും പക്ഷെ പ്രഷർ കുക്കറിലാവുമ്പോൾ നമൾക്കത്ര രുചി അതിൽ നിന്ന് കിട്ടുക കിട്ടില്ല പ്രഷർ കുക്കറില് കുക്ക് ചെയ്യുമ്പോൾ രുചി കൂടുതലുള്ളത് ശരിക്കും തുറന്ന പാത്രത്തില് ഭക്ഷണം ചെയ്യുന്നത് തന്നെയാണ് പിന്ന മൺകലത്തില് ഭക്ഷണം പാകം ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ് മൺകലത്തില് ഭക്ഷണം പാകം ചെയ്ത് കിട്ടുമ്പോൾ അതിന് രുചി കുറച്ചും കൂടി കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ പഴയ തലമുറയൊക്കെ ഭക്ഷണം പാകം ചെയ്തിരുന്നതും ഉണ്ടാക്കി കഴിച്ചിരുന്നതൊക്കെ ഇങ്ങനെ മൺകലത്തിലും അങ്ങനത്തെയൊക്കെ പാത്രങ്ങളിലൊക്കെ ആയിരുന്നു അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമെന്ന് പറയുന്നത് ഭയങ്കര രുചിയേറിയ ഭക്ഷണം ഭക്ഷണമൊക്കെയാണ് മൺകലത്തിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാ ഉണ്ടാവാറുള്ളത് പഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാല് പ്രഷർ കുക്കറിലെങ്ങനെയാണ് പ്രഷർ കുക്കറൊക്കെ ഇപ്പോൾ പുതിയ തലമുറകളിലാണ് ഇങ്ങനെ പ്രഷർ കുക്കറില് പാകം ചെയ്യുന്ന രീതിയൊക്കെ നമ്മള് കണ്ട് വരുന്നത് ഇപ്പം മൺകലത്തില് പാചകം ചെയ്യുന്ന രീതിയൊക്കെ നല്ലോണം മാറിയിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒര് രീതിയില് ഇപ്പോൾ ആരും തന്നെ പാചകം ചെയ്യാറില്ല പഷെ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് മൺകലത്തില് പാചകം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ അമ്മേനോടിപ്പോൾ മീൻക്കറി ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ മൺകലത്തിലാണ് അമ്മേനോട് പറയാറുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടാ മീൻക്കറി ഒക്കെ മൺകലത്തില് വെച്ച മീങ്കറിക്ക് നല്ല സ്വാദാണ് പക്ഷെ പ്രഷർ കുക്കറില് പ്രഷർ കുക്കറിലൊക്കെ നമ്മള് കറിയും ഒക്കെ ആക്കുമ്പോൾ അതല്ലെ പറഞ്ഞപോലെതന്നെ പെട്ടന്ന് ആയിക്കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും അതൊക്കെ മാത്രമേ അതും കൊണ്ടുള്ള അഡ്വാൻ്റെയ്ജുള്ളു ഇപ്പം നമ്മള് ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി കിട്ടണെങ്കില് നമ്മളെ ഹെൽത്തിനും ഒക്കെ നല്ലത് നമ്മള് ഇങ്ങനെ മൺകലത്തിലുണ്ടാക്കി കഴിക്കുന്നതും അതുപോലെ ഇങ്ങനെ തുറന്ന പാത്രത്തില് വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒക്കെ നമ്മളെ ഹെൽത്തിന് അത് നല്ലോണം ഗുണം ചെയ്യും ഇങ്ങനെ പ്രഷർ കുക്കറിലിട്ട് ആ പ്രഷറിൻ്റെ ആ ഒരിതില് മാത്രം വെന്ത് കിട്ടുന്ന ഭക്ഷണം അങ്ങ് ചിലപ്പം അത് ചിലപ്പം വേവ് കൂടുതലായിട്ട് ആ ഒര് ഇപ്പം നമ്മളെ പച്ചക്കറി ഒക്കെ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ വേവ് ചിലപ്പോൾ കൂടുതലാവാൻ ചാൻസുണ്ട് അങ്ങനെ വേവ് കൂടുതലായിട്ട് പച്ചക്കറിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട പല വിറ്റാമിൻസും നമുക്ക് പച്ചക്കറിയിൽ നിന്ന് കിട്ടാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നല്ലോണം വേവ് നല്ലോണം വെന്ത് പച്ചക്കറി കഴിക്കുന്നതിലും അത്ര അത് നമ്മൾക്ക് നമ്മളെ ഹെൽത്തിനു വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾക്കതിൽ നിന്ന് കിട്ടാൻ ഒക്കെ കുറച്ചും കൂടി ചാൻസ് കുറവാണ് ഇങ്ങനെ നല്ലോണം വെന്ത് വെന്തിട്ടുള്ള പച്ചക്കറികളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾക്ക് കിട്ടേണ്ട വിറ്റാമിനുകള് അങ്ങനെ നമുക്ക് പെട്ടന്ന് കിട്ടുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ മീൻസ് തുറന്ന പാത്രങ്ങളില് വേവിച്ച് അപ്പോൾ അത് അത്രയും വെന്ത് ഇത് ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് കുറച്ച് പെട്ടന്ന് നമ്മളത് എടുക്കാൻ വേണ്ടി നോക്കും വെച്ചെടുത്ത് നിന്ന് ഇപ്പം ആ പാചകത്തിന് വെച്ചെടുത്ത് നിന്ന് അപ്പോൾ കുറച്ചും കൂടി ടൈം കുറേ മീൻസ് ടൈം അത്ര വേ കുറേ സമയം വേവണ്ട വിചാരിച്ച് നമ്മള് പെട്ടെന്ന് എടുക്കും എന്നിറ്റത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട വിറ്റാമിൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പ്രഷർ കുക്കറിലൊക്കെ വേവിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് തുറന്ന പാത്രങ്ങളിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതല് നല്ലത് പിന്നെ പ്രഷർ കുക്കറില് പാചകം ചെയ്ത ഭക്ഷണത്തിന് അങ്ങനെ രുചി ഒക്കെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ചതിൽ നിന്നൊക്കെ ആണ് തുറന്ന പാത്രത്തില് പാചകം ചെയ്ത ഭക്ഷണത്തിനാണ് എനിക്ക് കൂടുതല് രുചി ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളതും അതാണ് നല്ലതെന്ന് തോന്നുന്നതും രുചി എപ്പോഴും ഇപ്പോഴൊക്കെയല്ലെ ഇങ്ങനെ പ്രഷർ കുക്കറും മറ്റ് പാത്രങ്ങളൊക്കെ വന്നത് പണ്ട് കാലങ്ങളില് എല്ലാവരും പാചകം ചെയ്ത് കഴിച്ചിരുന്നത് ഇതുപോലെ മൺകലം ത്തിലൊക്കെയാണ് പാചകം ചെയ്ത് കഴിച്ചിരുന്നത് ഇപ്പം അവർക്കൊക്കെ അങ്ങനെ കുറേ പണ്ട് തലമുറകളില് ഉള്ള കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അങ്ങനെ മൺകലങ്ങളില് കഴിക്കാനാണ് ഇഷ്ടവും ഇപ്പം ഇപ്പോഴത്തെക്കാലത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും മുമ്പത്തെ ആ ഒര് രീതീല് മൺകലങ്ങളില് പാചകം ചെയ്യുന്നവര് ചിലരുവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ വീട്ടലൊക്കെ മൺകലങ്ങളില് പാചകം ചെയ്ത് കഴിക്കാറുണ്ട് അങ്ങനെ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇപ്പം മീൻക്കറി പോലുള്ളതും എന്തെങ്കിലും കറികളും എനിക്കിഷ്ടപ്പെട്ട ചെറിയ കല കറികളൊക്കെ അമ്മ എനിക്കുണ്ടാക്കി തരാറുള്ളത് മൺകലത്തിലാണ് അതിനൊരു പ്രത്യേക സ്വാദാണ് മൺകലത്തിലുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുന്നതിന് ഓരോരോ ഓരോരോ പേർക്കും ഓരോരോ ഇഷ്ടമാരിക്കും ചിലപ്പോൾ എൻ്റെ ഒരഭിപ്രായത്തില് എനിക്കിങ്ങനെ തുറന്ന പാത്രത്തില് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഏത് രണ്ട് രീതീം നല്ലതായിരിക്കാം പഷെ അത് ഓരോരുടെ കോ വ്യൂ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പഷെ എനക്ക് ഏറ്റവും ഗുണവും പിന്നെ നമ്മളെ ഹെൽത്തിന് നല്ലതും അതുപോലെതന്നെ രുചിയും ഉണ്ടാക്കുന്നത് ഇതുപോലെ മൺകാലങ്ങളിലും തുറന്ന് വെച്ച പാത്രങ്ങളിലും നമ്മള് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ രുചി ഉണ്ടാവുന്നതും അതുതന്നെ അതിൽ തന്നെ ആയിരിക്കും പിന്നെ ഹെൽത്ത് വെച്ച് നോക്കുമ്പളും നമ്മള് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമൊക്കെ ഉള്ള പോഷകങ്ങൾ പോഷകഘടകങ്ങളൊക്കെ കിട്ടുന്നത് ഇങ്ങനെ തുറന്ന് വെച്ച പാത്രങ്ങളില് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ് ഇങ്ങനെ പ്രഷറ് ഉപയോഗിച്ച് നമ്മളതിനെ ഇങ്ങനെ വേവിക്കുമ്പോൾ പ്രഷർ കുക്കറിലൊക്കെ ഇങ്ങനെ നമ്മളടച്ചിട്ട് അങ്ങനെ അത് വേവിച്ചിട്ട് നമ്മള് ആ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിൽ നിന്നെല്ലാ വിറ്റാമിൻസും മറ്റ് പോഷകഘടകങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് നമ്മളിങ്ങനെ മൺകലങ്ങളില് ഭക്ഷണം പാകം ചെയ്ത് കഴിയ്ക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കില് തുറന്ന പാത്രങ്ങളില് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്